സർക്കാരിൽ ഓരോരോ രാഷ്ട്രീയങ്ങളും പുതിയ സംവിധാനം ഒക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഇപ്പം എന്താ വണ്ടി എലക്ട്രിക്ക കാര്യങ്ങൾ പിന്നെ ബാറുകൾ അങ്ങനെ ഒക്കെ ഏറ്റവും കൂടുതൽ ബാറുകളാണ് രാഷ്ട്രീയക്കാരുടെ പിടീന്ന് പറയുന്നത് പിന്നെ സർക്കാറിൽ ഇലീഫ് അങ്ങനെ ഒക്കെയാണ് ഏറ്റവും ഒരു മികച്ച ഇതായിട്ടൊക്കെ പോകുന്നത് എന്റെ അറിവിലൽ വിദ്യാഭ്യാസം അങ്ങനെ ഒക്കെയാണ് ഈ രാഷ്ട്രീയക്കാരുടെതന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം മദ്ധ്യം ഇത് രണ്ടും ആണ് ഏറ്റവും ഒരു മികച്ച ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇതാ കരുതന്നത് അല്ല ഇതാണ് ഏറ്റവും മികച്ച ഇത് കാരണം ഇതിനകത്ത് കൂടെയാണ് കുറെ സമ്പാദിക്കാനുള്ള വഴികൾ ഉള്ളത് വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ കുറെ തരം വിദ്യാഭ്യാസം ഉണ്ട് ഒന്ന് മുതൽ പത്ത് വരെ പ്ലസ് ടു പിന്നെ ഹയർ സ്റ്റഡീസ് അങ്ങനെ വിദ്യാഭ്യാസത്തിൽ കുറെ രാഷ്ട്രീയക്കാർ ഇതാക്കും പിന്നെ കുറെ സംവിധാനത്തിലൂടെ